നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ വെല്ലുവിളികൾ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെത്തന്നെയാണ് കാലാവസ്ഥയുടെ പ്രശ്നം അതുപോലെ ട്രാഫിക് ഗതാഗത പ്രശ്നം പിന്നെ റോഡിലുള്ള മോശം റോഡുകൾ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ അതേപോലെ മണ്ണിടിച്ച് ഇടുങ്ങിയ റോഡ് അതൊക്കെത്തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത് അതുപോലെ പിന്നെ ആൾ റോഡിലൂടെ നടക്കു മറ്റു വാഹനങ്ങളുടെ മോശമായ രീതിയിലുള്ള ഡ്രൈവിംഗ് അതേപോലെ അങ്ങനെയുള്ള റോഡിലുള്ള വന്യ മൃഗങ്ങൾ വന്യ മൃഗങ്ങളല്ല സാധാ മൃഗങ്ങൾ അങ്ങനെത്തെ അതൊക്കെത്തന്നെയാണ് പ്രധാന പ്രശ്നം ഒരു വാഹനം ഓടിക്കുമ്പോൾ ഒരു പ്രത്യേകിച്ചൊരു ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ ഉള്ള പ്രധാന പ്രശ്നം അതൊക്കെത്തന്നെയാണ് ഈ ടു വീലർ ഓടിക്കുമ്പോൾ ഉള്ള പ്രശനങ്ങൾ പിന്നെ അതൊക്കെ തരണം ചെയ്യാൻ എന്താ വെച്ചാൽ നമ്മുടെ ശ്രദ്ധ അത് മാറിപ്പോകാതെത്തന്നെ വാഹനം ഓടിക്കുക അല്ലാതെ അവ് ചുറ്റുപാടും നോക്കി വാഹനം ഓടിച്ചു പോകാനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിലില്ല അത്രയും ശ്രദ്ധിച്ച് മാത്രമേ നമുക്ക് ഒരു വാഹനം ഓടിക്കാൻ പറ്റുള്ളൂ അതും മിനിമം സ്പീഡിൽ വാഹനം ഓടിക്കുക അതൊക്കെത്തന്നെയാണ് തരണം ചെയ്യാനുള്ള പ്രശ്നം അത് പിന്നെ റോഡ് മോശമായതിൻ്റെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് സർക്കാരിൻ്റെ കയ്യിലാണ് പിന്നെ ബാക്കിയുള്ള കാലാവസ്ഥാപ്രശ്നങ്ങളും അതെ നമുക്ക് നമ്മുടെ കയ്യിലില്ല അതുകാരണം നമ്മുടെ ശ്രദ്ധ നമ്മുടെ ജീവൻ എന്നതിൽ നമ്മൾ ശ്രദ്ധിക്കുക അത്രതന്നെയാണ് ഇതിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു